എൻ്റെ വീട്ടിൽ മുറ്റം നിറയെ ചെടികളാണ് പൂച്ചെടികളാണ് സ്വർ മുല്ല മുല്ലച്ചെടി മുല്ല റോസാ ജെമന്തി അങ്ങനെ ഒത്തിരി പൂവുകൾ ഉള്ള മനസ്സിന് സന്തോഷം തരുന്ന ഒത്തിരി പൂച്ചെടികളുണ്ട് അത്കൂടാതെ നാനാതരം പച്ചക്കറികൾ ഞാൻ നട്ട് വളർത്തുന്നുണ്ട് വീട്ടിൻ്റെ ബ കൂടുതൽ പ്രകാശമുള്ള സ്ഥലത്ത് ഞാൻ പാവയ്ക്ക വെണ്ടയ്ക്ക വഴുതനങ്ങ പച്ചമുളക് ഇവയും ഞാൻ നട്ട് വളർത്തുന്നുണ്ട് അവയെ നട്ടാൽ മാത്രം പോര അതിനെ സുശ്രുഷിക്കുകയും അതിനെ കീട നാശിനികൾ കൊടുത്ത് അതിനെ കീടങ്ങളീന്ന് സംരക്ഷിക്കുകയും വേണം അത്കൊണ്ട് എനിക്ക് കിട്ടുന്നുള്ള മെച്ചം വിഷലിപ്ത മായ സമൂഹത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും വിഷമില്ലാത്ത പച്ചക്കറികൾ ഞാൻ നേടിയെടുക്കുന്നതോടൊപ്പം മനസ്സിന് കുളിർമയുള്ള നല്ല പൂച്ചെടികൾ ബാ കൊണ്ട് നല്ല സൗരഭ്യം വളർത്തുന്ന മുല്ലച്ചെടിയും അതുപോലെ തന്നെ റോസാച്ചെടിയും ജെമന്തിയും ഒക്കെ പു പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ നയന മനോഹരമാണ്